കോഴിയെ വ പ്രധാന വെല്ലുവിളിയെന്നു പറഞ്ഞാല് കൂടുതൽ കോഴിയെ വളർത്തുമ്പോള് അവയ്ക്കുവേണ്ട തീറ്റയും പിന്നെ അതിൻറ്റെ കൂടും അതായത് പ്പ മറ്റു മൃഗങ്ങ കോഴികളെ ശല്യം ചെയ്യുന്നതും പിടിക്കുന്നതുമായ കൊല്ലുന്നതുമായ ജീവികളിൽ നിന്ന് അവയെ സംരക്ഷിച്ച് നല്ല സുരക്ഷിതമായ കമ്പിവേലിയുള്ള കൂടു നിർമിക്കുന്നതാണ് ഒരു കർഷകനെ സംബന്ധിച്ച് ഏതാനും പറ ച്ചൊരുത്തരും കൂടുതലും കോഴിയെ വളർത്തിയെങ്കിലേ അത് ജീവിതോബാ ജീവനോപാധിയായിട്ട് ഒരു കർഷകന് ഉപയോഗിക്കുവാൻ സാധിക്കുള്ളു അല്ലെങ്കിലത് കുറച്ചു കോഴിവളർത്തി വീട്ടിലെ ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കുക പിന്നെ പ്രധാനമായിട്ടും വലിയ വിലയിടിച്ചിലും വിലയുടെ ഏറ്റക്കുറച്ചിലുകളും ങാ കോഴിവളർത്ത് കർഷകന് എന്നും പ്രതിസന്ധിയാണ് അപ്പോള് ങാ കോഴിയെ വാങ്ങുന്ന സമയത്ത് നല്ല വിലയാണ് നല്ലയൊരു ജീവിനോപാധിയായിട്ട് ഉപോതിയായിട്ട് ഉപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതിയായിരിക്കാം ഇത് ചെയ്യുന്നത് പക്ഷെ അത് വിളവെടുക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും വിലയിടിക്കുന്നത് അത് ചിലപ്പോള് കർഷകനു വളരെ മനസ്സിടിയുവാനും മറ്റു നിരാശയിലേക്കു പോകുവാനുവായിട്ടൊക്കെ ഇടയാക്കുന്നുണ്ട് കർഷകൻ്റെ പ്രധാന ഒരു ഒരു ഭക്ഷ്യോപാധിയും മറ്റു മുട്ടയും ഒക്കെയാണേലും വളരെ കുട്ടികൾക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്നൊരു സംഭവമാണ് കോഴിവളർത്തല് പക്ഷെ ഇതിൻറ്റെ പ്രധാന പ്രശ്നം വിലയിലുള്ള ഏറ്റക്കുറച്ചിലാണ് വളർത്തുന്നത് അതിൻറ്റെ ഒരു നിശ്ച്ചിത വില ഇടുകയാണെങ്കിൽ ഏതു സമയത്തും കർഷകന് അത് മുന്നോട്ടു വിജയകരമായി കൊണ്ടുപോകാന് പറ്റും പിന്നെ അതിൻറ്റെ പേഴ്സണൽ സാധനങ്ങൾ പലപ്പോഴും തീറ്റ അത് പൂപ്പലും മറ്റും ബാധിച്ച് കർഷകന് പക്ഷികൾക്ക് പെട്ടെന്ന് രോഗം വരുന്ന ഒരു വർഗമാണ് കോഴികള് സമയത്തും പെട്ടെന്നൊരു അപായം സംഭവിക്കുന്നതാണ് അപ്പോള് അത് വളരെ ആയിട്ട് ഒരൂ നിയന്ത്രണ രീതിയില് പോവുവാണെങ്കിൽ കർഷകന് വളരെ പ്രയോജനമായിരിക്കും പിന്നെ നമ്മള് മിർഷാ പക്ഷ്യമൃഗാദികളെയൊക്കെ വളർത്തുന്ന സമയത്ത് ദൂരെ പോവുവാണെങ്കിൽ കൂടുതൽ തീറ്റ കൊടുത്തേച്ചൊക്കെ ആയിരിക്കാം പോവുന്നത് പലപ്പോഴും അത് പൂത്തും മറ്റ് പിൻ മോശമായ രീതിയിൽ പോകുമ്പോള് അത് കോഴികൾക്കുതന്നെ അത് മോശമായിട്ട് ബാധിക്കാറുകൊണ്ട് കോഴിക്ക് ഏതാണ്ട് പിന്നെ അയൽവാസികളെ ആരേങ്കിലൊക്കെ ഏപ്പിച്ചുപോവുകയാണ് പതിവ് പിന്നെ ഇവയെ വളർത്തുമ്പോള് ഇവയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കോഴിയാണെങ്കില് ചത്തുപോകാം അല്ലെങ്കില് മറ്റൊരു മൃഗമാണെങ്കില് അവയ്ക്ക് അസുഖങ്ങള് അവയ്ക്കുണ്ടാക്കുന്ന നാശം പ്രശ്നങ്ങള് അത് കർഷകന് എന്നും ദുഃഖവും വേദനയും ഉളവാക്കുന്നൊരു കാര്യമാണ് അതു പലപ്പോഴും നല്ല സംരക്ഷണവും പരിചരണവും ഉണ്ടെങ്കിൽ ഇത് കൂടുതല് ഒഴിവാക്കാം പറ്റുന്നെയൊരു കാര്യമാണ് കോഴി ഏതൊരു ജീവിയെയും അതിനെ കൂടുതൽ നമ്മുടെ സമ്പർക്കവും പരിചരണവും ഏതു സമയത്ത് അതിനെ പരിപാലിക്കുക എന്ത് കുറവുണ്ട് അവയ്ക്ക് എന്താണ് അവയുടെ പ്രശ്നമെന്ന് അനുദിനം ശ്രദ്ധിച്ച് അതിനുവേണ്ട മരുന്നും മറ്റ് പരിചരണങ്ങൾ നൽകുകയാണെങ്കിൽ കൂടുതലും അവയെ കൂടുതൽ അപകടത്തില്നിന്നു രക്ഷിക്കുവാനും സാധിക്കും എങ്കിലും ചില സമയങ്ങൾ ഈ ഒരാപത്ത് വന്നപ്പോ ക്കാറുണ്ട് അപകടം സംഭവിച്ച് മറ്റു രോഗമോ അല്ലെങ്കിൽ ഭക്ഷണത്തിലുണ്ടാകുന്ന പൂപ്പല് മറ്റു ദഹന പ്രശ്നങ്ങള് അതൊക്കെ ബാധിച്ച് ഇവയെ നഷ്ടപ്പെടാറുണ്ട് അത് കർഷന കർഷകന് വളരെ വേദന ഉളവാക്കുന്നാണ് കാരണം ജീവനോപാധിയായിട്ട് വളർത്തുന്ന ഒരു ജീവി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കർഷകന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വളരേ കൂടുതലും വളരെ മറ്റു മാർഗ്ഗങ്ങൾ ഇല്ലാത്തവരായിരിക്കാം ജീവിത ജോലിയോ അധികവും ഇല്ലാത്തവരാണ് കൂടുതലും മൃഗങ്ങളെ വളർത്തുക അപ്പോള് അവരവര് ഒരു ഉപജീവനമാർഗമായിട്ടായിരിക്കാം കൂടുതലിത് കൊണ്ട് നടക്കുന്നത് അപ്പോള് അവർക്ക് ഈയൊരു സംഭവുവാ ജീവികളെ നഷ്ടപ്പെടുക എന്നു പറയുന്നത് വളരെ വേദനയുളവാക്കുന്നതാണ് അത് അങ്ങനെയുണ്ടാകുന്ന നഷ്ട അപ്പോള് പലപ്പോഴും വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോവാനും നമ്മുടെ കുടുബത്തിലെ ഒരംഗത്തെ പോലെ കണ്ട് വളർത്തുന്ന ആളുകളാണ് കൂടുതലും ജീവികളെ അപ്പോള് ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള രീതീ മനസ്സിടറി മനസ്സ് ഒരു നിരാശയിലേക്ക് പോകാന് വിടരുത് ഇതിനെ ഇനി ഇങ്ങനെ വേണ്ട എന്ന് പലപ്പോഴും ഞാനാണല്ലോ അന്നെനിക്കും തോന്നിയിട്ടുണ്ട് ജീവികളോട് അവയെ വളർത്തിക്കഴിഞ്ഞാല് വളരെ സ്നേഹമാണ് പക്ഷെ അവ നഷ്ടപ്പെടുക എന്നു പറയുന്നത് വളരെ വേദനയാണ് അപ്പോള് പലപ്പോഴും ഇതൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോന്നുള്ള ആ ഒരു അവസ്ഥ നമ്മള്ക്ക് വരാറുമുണ്ട്